മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണങ്കിൽ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ വൃദ്ധസദനങ്ങൾ കുറയ്ക്കുക എന്നാണ് ഞാൻ പറയുന്നത് കാരണം വൃദ്ധസദനങ്ങളുള്ളതു കൊണ്ടാണ് മാതാപിതാക്കളെ പലരും അവിടെ കൊണ്ടുപോയി ആക്കുന്നത് അങ്ങനെയൊരു വൃദ്ധസദമെന്നുള്ള ഒരു ഇതില്ലായെങ്കിൽ കഴിയുന്നതും മാതാപിതാക്കളെ വീട്ടിൽ തന്നെ എല്ലാവരും സംരക്ഷിക്കാൻ തോന്നും പിന്നെ മറ്റൊരു രീതിയിൽ നോക്കുവാണെങ്കിലത് വൃദ്ധസദനങ്ങൾ പോലുള്ള അനാഥാലയങ്ങളൊക്കെയുള്ളത് നല്ലതാണ് ആരോരുമില്ലാത്തവര് അനാഥരായ വൃദ്ധർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊരുപാട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നു പറയുമ്പോള് പൗരന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ട് ഞാനേറ്റവുമാദ്യം പറയും ലഹരി മദ്യം മയക്കുമരുന്ന് പുകവലി അങ്ങനെയുള്ള ലഹരികളെല്ലാം പാടെ നമ്മുടെ രാജ്യത്തുനിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണേറ്റവും ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കാരണം പൗരൻമാരെ കൂടുതലിന്നത്തെ കാലത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ ലഹരിയെന്ന് പറയുന്നൊരു കാര്യമാണ് അതിന്റെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കില്ത്തന്നെ ഈ ലോകത്തൊരുപാട് കുറ്റകൃത്യങ്ങളുടെ അളവ് കുറഞ്ഞെന്നിരിക്കും അത് എങ്ങനേലും ഈ രാജ്യത്തു നിന്ന് തുടച്ചുനീക്കാനാദ്യം ശ്രമിക്കണം അങ്ങനെ പൗരൻമാരെ സംരക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ടതൊക്കെയാണു ചെയ്യാൻ പറ്റുന്നത് ലഹരി എന്നുള്ള കാര്യം ഒഴിവാക്കുക പിന്നെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിലേറ്റവും കൂടുതല് നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് പൗരന്മാര് തന്നെയാണ് അത് അവര് ലഹരിക്കടിമപ്പെട്ടതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലര് സ്വബോധത്തോടെ ചെയ്യുന്നവരുണ്ട് എന്നും പറഞ്ഞ് സ്ത്രീകള് അങ്ങനെ കുറ്റകൃത്യങ്ങള് ചെയ്യുന്നില്ല എന്ന് ഞാനൊരിക്കലും പറയുകേല ഇന്നത്തെ കാലത്തെ കൊച്ചു പെൺപിള്ളേരു തൊട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാലും കൂടുതൽ പുരുഷന്മാരാണെന്നെനിക്കു തോന്നുന്നു പുരുഷന്മാരെ സംരക്ഷിക്കണം സ്ത്രീകൾക്കു കൊടുക്കുന്ന പോലെ തന്നെ പരിഗണനയും സംരക്ഷണവും എല്ലാം പുരുഷന്മാർക്കും കൊടുക്കാവുന്നതാണ് ഏതൊരു സ്ഥലത്തു ചെന്നാലും ശരിയാണ് സ്ത്രീക്കാണു മുൻഗണന അതുപോലെ പുരുഷന്മാരെ അതുപോലെ പരിഗണിക്കേണ്ടതാണ് പിന്നെ ഈ ലഹരിയുടെ ഉപയോഗമൊക്കെക്കൊണ്ടാണ് പുരുഷൻമാരെ കൂടുതലൊരു കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുന്നത് ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കില്ത്തന്നെ നാടൊരുപാട് നന്നാവും പല കുടുംബങ്ങളും തകരുന്നത് മദ്യപാനം മൂലം ഭർത്താവിൻ്റെ മദ്യപാനം അല്ലെങ്കിൽ പിതാവിൻ്റെ മദ്യപാനം ആങ്ങളയുടെ മദ്യപാനം മൂലമാണ് പല കുടുംബങ്ങളും തകർന്നുപോവുന്നത് അതുകൊണ്ട് ലഹരിയെങ്ങനേലും ഒഴിവാക്കുക പുരുഷൻമാരെ സംരക്ഷിക്കുക അതാണെനിക്കു പറയാനുള്ളത്